അങ്ങനെ പറയത്തക്ക പ്രശസ്തമായ യൂറ്റൂബ് ചാനലൊ അല്ലെങ്കിൽ ടീ വീ ഷോകളൊ നൃത്തമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമങ്ങനെ കാണാറില്ല പക്ഷെ ഇങ്ങനെ നമ്മളെ സമൂഹ മാധ്യമങ്ങൾ അതായത് യൂറ്റൂബൊ അല്ലെങ്കിൽ ഇന്സ്റ്റാഗ്രാമൊ ഒക്കെ യൂസ് ചെയ്യുമ്പം ഈ റീല്സ് അല്ലെങ്കിൽ യൂറ്റൂബ് ഷോട്ട്സിനകത്തൊക്കെ വരുന്ന നൃത്തങ്ങൾ കാണാറുണ്ട് അപ്പോൾ അതിൽ പരമ്പരാഗതമായിട്ടുള്ളത് അതായതിപ്പം ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി അല്ലെങ്കിൽ കഥക് അതൊക്കെ വരുന്ന ഷോട്ട്സും അല്ലെങ്കിൽ റീല്സും ഉണ്ട് അതേപോലെതന്നെ നമുക്ക് എന്താ പറയുക വെസ്റ്റേണ് ആയിട്ടുള്ള ഡാന്സും എല്ലാം അതിൽ ഉണ്ട് എല്ലാവരും പരമ്പരാഗതമായിട്ടുള്ള രീതി തന്നെ പാലിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലൊ അപ്പോൾ എല്ലാം ചിലർ ഫ്യൂഷന് ചെയ്യാറുണ്ട് അതായത് കര്ണാടിക്ക് കര്ണാട്ടിക്ക് പാട്ടുകളിൽ വെസ്റ്റേണായിട്ടുള്ള നൃത്തം ചെയ്യുന്നവരുണ്ട് അതുപോലെ ഫ്യൂഷന്സുണ്ട് ഇനി എടുത്തുപറയാന് തക്ക ഇഷ്ടപ്പെട്ട ഒരു നര്ത്തകിയെന്ന് പറയുകയാണെങ്കിൽ ആ ആര്യ പാര്വ്വതി എന്നു പറഞ്ഞിട്ട് ഒരു മാമുണ്ട് മോഹിനിയാട്ടമാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് മോഹിനിയാട്ടത്തിന്റെ വീഡിയോകളൊ അല്ലെങ്കിൽ റീല്സൊക്കെയാണ് കൂടുതലും ഇടാറ് അപ്പം അത് വളരെ ഇഷ്ടമാണ് പിന്നതേപോലെ അങ്ങനത്തെ ഒന്ന് രണ്ട് ഭരതനാട്യം കുച്ചിപ്പുടി ഒക്കെ കൂടുതലായിട്ട് ചെയ്യുന്ന വീഡിയോകൾ കാണാന് വളരെ ഇഷ്ടമാണ് പരമ്പരാഗത നൃത്തരീതിയ്ക്ക് അതിന്റേതായൊരു ഭംഗിയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതാണ് കൂടുതല് താല്പര്യം പക്ഷെ എന്നു വച്ച് ബാക്കിയുള്ള അതായതിപ്പം ഹിപ്ഹോപ്പായിക്കോട്ടെ ഫ്രീ സ്റ്റൈലിങ്ങായിക്കോട്ടെ അതുപോലെ സാല്സ ആയിക്കോട്ടെ അങ്ങനെയുള്ള നൃത്ത രൂപങ്ങളോടൊന്നും പ്രത്യേകിച്ച് വിരോധങ്ങളും കാര്യങ്ങളുമൊന്നുമില്ല അപ്പോൾ എല്ലാം കാണും അതിലൊന്നും പ്രശ്നമൊന്നുമില്ല